നമ്മുടെ ഗ്രാമത്തിലൊരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്കാണ് ഉദാഹരണം പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് തവണ നമ്മള് പഞ്ചായത്തുകൾ കയറിയിറങ്ങണ്ടി വരും പിന്നീട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കെ എസ് ഇ ബി വഴി കണക്ഷൻ കിട്ടല് അതിപ്പോൾ ഒരു നിസാരം ഒരു കേബിള് വലിച്ച് സർവീസ് വയറ് വലിച്ച് കരണ്ട് കിട്ടുന്നതാണെങ്കിൽ അവര് നമ്മളൊരു പുതിയ സ്ഥാപനം തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവര് ഒരു പോസ്റ്റിടാൻ വേണ്ടി നിർദ്ദേശിക്കും അപ്പം നമ്മൾ പത്ത് പതിമൂവായിരം രൂപ എക്സ്ട്രാ അതിൽ കൊടുക്കേണ്ടി വരും പാവങ്ങൾക്ക് അതൊക്കെ വലിയ വെല്ലുവിളിയാണ് വരുന്നത് പിന്നീട് നമ്മള് ഈ കെ എസ് ഇ ബി യും എല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് ലോണ് കിട്ടില്ല നമുക്ക് ലോണ് കിട്ടാൻ വേണ്ടി ബാങ്കുകൾ ഒരുപാട് കയറി ഇറങ്ങേണ്ടി വരും ബാങ്കിൽ നിന്നൊരു ലോൺ ലഭിക്കുവാണേൽ തന്നെ നമ്മളാദ്യം മെഷീനറിസ് കൊണ്ട് വരണം അതിന് ശേഷമേ നമുക്ക് ലോണ് കിട്ടുകയുള്ളു അപ്പോൾ ഈ മെഷീനറിസ് വാങ്ങാനുള്ള ക്യാഷിന് വേണ്ടി നമ്മളൊരുപാട് അലയേണ്ടി വരും ഇതൊക്കെയാണ് പാവങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളികൾ ഇതിന് വേണ്ടിയൊക്കെ നിങ്ങൾ പിൻന്തുണയ്ക്കേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളത്